ഇന്ത്യയിൽ ധാരാളം ലാൻഡ് മാർക്കുകളുണ്ട് അതായത് പിന്നെ ആഗ്രയും താജ്മഹൽ ഷാജഹാൻ പണി കഴിപ്പിച്ചത് മധുര മീനാക്ഷി ടെംപിള് മൈസൂർ മൈസൂർ പാലസ് മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിൽ കുത്തബ് മിനാറ് ഇങ്ങനെ ധാരാളം ലാൻഡ് മാർക്കുകളുണ്ട് പിന്നെ സൗത്ത് ഇന്ത്യേലാണെങ്കിൽ ഊട്ടി കൊടൈക്കനാൽ എന്ന് വേണ്ട അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം കോവളം പിന്നെ മൂന്നാർ അതുപോലെ വിനോദസഞ്ചാരങ്ങൾ ധാരാളം ഉണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ഊട്ടി ഒക്കെ പോയാൽ നമുക്ക് ഏറ്റോം നല്ലൊരു നല്ല പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഉള്ളത് പിന്നെ ബോട്ടിങ്ങും അതുപോലെ ഇപ്പോൾ തേക്കടി ഭാഗത്തേക്കൊക്കെ പോയാൽ ബോട്ടിങ്ങ് അതുപോലെ ഓരോ പിന്നെ